നമ്മുടെ പാലക്കാട് ജില്ലയുടെ നോക്കുവാണ് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ കുറേ ഉത്സവങ്ങള് ക്ഷേത്ര ഉത്സവങ്ങൾ ആയാലും ഇപ്പോൾ പള്ളീൻ്റെ ആയാലും ക്രിസ്ത്യൻ പള്ളിയുടെ ആണേലും നമ്മുടെ മതപരമായ ഉത്സവങ്ങൾക്ക് പേര് കേട്ട ജില്ലയാണ് പാലക്കാട് ജില്ല ഇവിടെ ഓരോ അമ്പലങ്ങളാണെങ്കിൽ ഇഷ് നോക്കുകയാണെങ്കിൽ കുറേ അധികം അമ്പലങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര അധികം അമ്പലങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര അധികം അമ്പലങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ എല്ലാ അമ്പലങ്ങളും ഫേമസാണ് ആ അമ്പലത്തിലൊക്കെ വേലയും പൂരം കാര്യങ്ങളും പറയുക ചുറ്റുവിളക്ക് അങ്ങനത്തെ പല പല ഉത്സവങ്ങളാണ് അപ്പോൾ അതിനൊക്കെ ആൾക്കാര് ഒത്തുകൂടും അതിലിപ്പോൾ ജാതി നോക്കാനോ മതം നോക്കാനോ ഒന്നും ആരും നിക്കില്ല അത് വിവിധ തരത്തിലുള്ള ആൾക്കാരുണ്ടാകും അവരുടെ കുടുംബം കാര്യങ്ങള് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഉത്സവം ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടുകാര് വരും അവിടുത്തെ ആൾക്കാര് കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാര് വരും ഇതിലൊന്നും ആരും മതവും കാര്യങ്ങളും നോക്കാറില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഐക്യം ഇതിലൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ മതപരമായിട്ടുള്ള ഐക്യം അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ നമുക്ക് എന്താ പറയുക ഈ ഉത്സവങ്ങളുടെ കാര്യം വെടിക്കെട്ട് അതുപോലെ നെന്മാറ വല്ലങ്ങി വേല നമ്മുടെ പേര് കേട്ട കേരളത്തിൽ തന്നെ പേരു കേട്ട വേലയാണ് നെന്മാറ വല്ലങ്ങി വേല വെടിക്കെട്ടിനും പേര് കേട്ട വേല അപ്പോൾ അതും നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് അതിന് ഒരു ആ ഒരു ദിവസം ഇവിടെ എത്ര ആൾക്കാരാണ് അതിൽ ഏതൊക്കെ തരക്കാരുണ്ടെന്നോ അങ്ങനെ ഒന്നും ആരും നോക്കാൻ ഉണ്ടാകില്ല ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമായിരിക്കും അവിടെ ഉണ്ടാകുക അത് ആന പൂരം കാണാൻ ഉണ്ടാകും അമ്പലത്തിൽ ആൾക്കാര് കേറും പിന്നെ അതുപോലെ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാര് ഇപ്പോൾ നമ്മുടെ പള്ളിനേർച്ച നോക്കുകയാണെങ്കിൽ പറയുമ്പോൾ അതില് ഭക്ഷണം കഴിക്കാനായിട്ട് ഹിന്ദുക്കള് എല്ലാവരും പോകും അപ്പോൾ ഇത് നമ്മുടെ പാലക്കാടിൻ്റെ മാത്രം പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പാലക്കാട് ജില്ലയിൽ ഇത് വളരെ അധികം ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാര് കൂടുതലായിട്ടുള്ള എന്താ പറയുക പ്രാമുഖ്യം നൽകുന്നുണ്ട് അപ്പോൾ അതില് നമ്മുടെ ആൾക്കാര് കുറച്ചും കൂടെ ബെറ്ററാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം